ആ പറയൂ ഓക്കെ എങ്ങനത്തെയാണ് അ ബു ആ ഓക്കെ ആ നോക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇത് എന്തിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ആ ഓക്കെ ആ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ വന്നുവെന്ന് പറഞ്ഞാൽ പറ്റുമോ ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ക്ലെയിം ചെയ്യുക അ ആ അപ്പോൾ നമുക്കെന്തെങ്കിലും ഇപ്പോൾ രോഗം വന്ന് മരണപ്പെടുവാണെന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടാൻ വഴിയുണ്ടോ ഉം ഉം ഇത് മൊത്തം എത്രെയാ ആ ഓക്കെ അപ്പോൾ അതിൻ്റെ എയ്ജ് ലിമിറ്റ് ഒക്കെ എത്രയാണ് ഒ ഓക്കെ ഓക്കെ ആ അപ്പോൾ അടവ് അടയ്ക്കണ്ടത് ആറ് മാസം കൂടുമ്പോൾ ഓക്കെ ആ ഓക്കെ ഇപ്പം നമുക്ക് പെട്ടന്ന് എന്തേലും ആക്സിഡൻറ്റൊക്കെ ആയീന്ന് പറഞ്ഞാൽ താങ്ക്സ് ആ ആ ഓക്കെ ഇപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് വന്ന് ചേരണോ അതെ ആ ശരി ആ ഉം ഉം ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് വരണോ അങ്ങോട്ട് ആ ഓ ഉം പിന്നെ ഒരു ദിവസം വന്നാലും മതി ഇല്ലേ ആ ഓക്കെ ഇപ്പം രണ്ടായിരം രൂപ ഞാൻ അടച്ചൂന്ന് പറഞ്ഞാൽ പിന്നെ ആറ് മാസം കഴിഞ്ഞിട്ടാണ് ആ അടവ് അടയ്ക്കണ്ടത് ആ ഓ ആ ഓക്കെ ആ ഓക്കെ വരാം വരാം ഉം ഉം